ഞാന് മത്സ്യബന്ധനം പഠിച്ചതെങ്ങനെ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കു കുട്ടികാലത്ത് തൊട്ട് ഞാന് എൻ്റെ അച്ഛൻ്റെ കൂടെ ഞാന് മത്സ്യബന്ധനത്തിനക്കെ പോകാറുണ്ട് അപ്പോൾ ചേ ചില സമയത്ത് എനിക്കിങ്ങനെ ഒരു ആഗ്രഹം ഒക്കെ ഉണ്ടായിരുന്നു കടലിലേക്കൊക്കെ പോകണമെന്ന് ആഗ്രഹം ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാന് മത്സ്യബന്ധനവും കാര്യങ്ങളക്കെ എങ്ങനെയാണ് പിടിയ്ക്കുന്നത് എങ്ങനെയാണ് വല എറിയുന്നത് നമ്മളോരോ വല വീശി എറിയുന്നതിന് ഓരോ കാര്യങ്ങളക്കെ ഉണ്ട് അപ്പം അതൊക്കെ നമ്മള് നോക്കി പഠിച്ചില്ലെങ്കിൽ ചിലപ്പം നമുക്കത് നമുക്ക് മീനൊന്നും കിട്ടില്ല അപ്പം അങ്ങനത്തെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളക്കെ ഉണ്ടാകും അപ്പം അതുകൊണ്ടാണ് ഞാന് ചെ കുട്ടിക്കാലം തൊട്ട് ഞാന് മത്സ്യബന്ധനത്തിന് പോകാറുണ്ട് അപ്പോ ഇപ്പ എൻ്റെ അച്ഛനാണങ്കിലും മറ്റുള്ളവരാണങ്കിലും അവരൊക്കെ നല്ല രീതീല് മത്സ്യബന്ധനോം കാര്യങ്ങളക്കെ ചെയ്യുന്നവരാണ് അപ്പോൾ എനിക്കൊരു വട്ടമെങ്കിലും പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ എൻ്റച്ഛൻ അങ്ങനെ കൂട്ടാറില്ലാരുന്നു അപ്പം ഞാൻ അച്ഛൻ്റെ അച്ഛനെ പറഞ്ഞ് പറഞ്ഞ് ഇതാക്കീട്ടാണ് ഞാൻ അച്ഛൻ്റെ കൂടെ പോയിട്ടുള്ളത് അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ കൂടുതലായിട്ടും പഠിച്ചത് നല്ല ഒരു അവരിൽ നിന്നൊക്കെ നല്ല രീതിയില് എനിക്ക് പഠിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഏതൊക്കെ മീനെ ഒക്കെ പിടിക്കണം ഏതക്കെ മീനേ ഒഴിവാക്കണം എന്നൊക്കെ അവരിൽ നിന്നാണ് ഞാൻ പഠിച്ചത്